എസ് സർ പറയൂ അ ഓക്കെ സർ എത്രാം ക്ലാസ്സിലാണ് അ സർ അതെ കുട്ടിയുടെ പേരെന്താ റിദൈ ഓക്കെ ഓക്കെ അ ഓക്കെ ഓക്കെ ഓക്കെ സർ ഈ എൽ കെ ജി യു കെ ജി കൂടി രണ്ട് ലക്ഷം രൂപയാണ് വരുന്നത്

വേറെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം പിന്നെ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഫുഡ് കൊടുത്ത് വിടണോ അതോ ഇവിടെ കൊടുക്കണോ ഇവിടുത്തെ വേറെ ഉണ്ട് അതെ അത് വരും അതിന് എന്താ പറയുക അൻപതിനായിരം രൂപ ഫുഡിന് വരുവായിരിക്കും ഒരു വർഷത്തിലേക്ക് കുട്ടികൾക്ക്

നമുക്ക് ആധാർ കാർഡ് വേണം അതെ വേണം വേറെ ഒന്നും വേണ്ട സർ ബാക്കി ഇവിടെന്ന് റെഡി ആക്കാം

ആധാർ കാർഡിൻ്റെ കോപ്പി വേണം

പാരൻറ്റിൻ്റെ ആരാണ് ചേർക്കാൻ വരുന്നത്

കുട്ടിക്കാണല്ലൊ അഡ്മിഷൻ എടുക്കുന്നത് സ്കൂൾ ബസ്സ് അതെ ദ്വാരകക്ക് ദ്വാരകക്ക് സ്കൂൾ ബസ്സുണ്ട് അതേപോലെ ജീപ്പ് ഉണ്ട് കേട്ടോ സ്കൂളിൻ്റെ തന്നെ ജീപ്പിനാണ് ചാർജ് സാറെ ജീപ്പ് നമ്മളുടേത് അല്ല അ ബസ്സിന് അതെല്ലാം കൂടിയാണ് രണ്ട് ലക്ഷം പറഞ്ഞത് ചെറിയ കുട്ടികളല്ലെ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങള് വരുമ്പോൾ കുട്ടികൾക്കായിട്ട് സാധനങ്ങള് കളിക്കാൻ ഒക്കെ വാങ്ങുബോൾ ചെറിയ പൈസ വേണ്ടി വരും പിരിവ് എടുക്കുമ്പോൾ അത് മാത്രമേ ഉണ്ടാവുകയുള്ളു സർ അ നാളെ വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരണം ഓക്കെ സർ അതെ ശരി